ഹലോ ആ സാറേ അത് ഇപ്പോൾ എത്തിക്കുമല്ലോ ആ സാർ പെട്ടെന്നെത്തി ഇല്ലയോ

യെസ് സാർ ആണ് നമ്മൾ നിങ്ങൾക്ക് ചാറ്റിൽ ഇട്ടു തരാമായിരുന്നു

വളരെ നല്ല പ്രൊഡക്റ്റാണ് സാർ

ആ ഷോപ്പ് ചെയ്തപ്പോൾ നല്ലൊരു ആ ആ അത് ഒരായിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് റുപ്പിയ്ക്ക് കിട്ടും സാർ ജാക്കറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് സാർ

മാനന്തവാടിയാണ് സാർ ആ നമ്മുടെ കയ്യിൽ ഈ പ്രോഡക്റ്റ് വേഗം വന്നു അപ്പം നമ്മൾ അപ്പം തന്നെ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനു വേഗം കൊടുക്കുന്നു